ഞാൻ മീഷോയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരുന്നു ഒരു ടെൻ ഡേയ്സ് മുമ്പ് അതെനിക്ക് കിട്ടിയത് മിനിങ്ങാന്നാണ് ഒരാഴ്ച്ചയെടുത്തു അതെനിക്ക് എൻ്റെ കൈയ്യിൽ കിട്ടാൻ വേണ്ടിട്ട് ഒരു ടോപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു യെല്ലോ കളറ് ടോപ്പ് സിമ്പിൾ ടോപ്പായിരുന്നു അത് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഐ ആം സോ ഹാപ്പി ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത് അത്രയും നല്ല നല്ലൊരു ക്വാളിറ്റിയുള്ളതും നല്ല എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള കളറും നല്ലൊരു ക്വാളിറ്റിയും അതേപോലെ അതിൻ്റെ ഫീസാണെങ്കിലൊക്കെ കറക്റ്റാണ് ഞാൻ വിചാരിച്ച പോലെത്തന്നെയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത് അത് ഞാൻ ഇട്ടു നോക്കിയപ്പോഴും എനിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് പേര് എൻ്റടുത്തു കമന്റ് ചെയ്തു ഒരുപാട് പേര് അവരുടെ അഭിപ്രായം പറഞ്ഞു നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് എവിടുന്നാണ് മേടിച്ചെന്നൊക്കെ ചോദിച്ചു അത് എന്നെ സംബന്ധിച്ചു നല്ല സന്തോഷം നിറഞ്ഞ ഒരു ഒരു നിമിഷമായിരുന്നു